ഹലോ അഡോണേ ആ ഒരു തുണി കൊണ്ടുതന്നില്ലായിരുന്നോ തയ്ക്കാനായിട്ട് അതെങ്ങനെ തയ്ക്കാനായിരുന്നു അത് ആ ആ ആ ആണോ ഹാ ഹാ ഹാ ഫ്രോക്ക് തയ്ക്കാനായിട്ടാണല്ലേ ആ ഫ്രോക്ക് തയ്ക്കുന്നതാണ് അപ്പോള് അതിൻ്റെ കഴുത്ത് ഏത് ഷെയ്പ്പാണ് വി ഷെയ്പ്പാണോ അല്ല അല്ലാതെ വട്ടകഴുത്തായിട്ടാണോ ആ ആ ആ അതെ അതെ ആ ആ അങ്ങനെ തയ്ച്ചാല് മതിയല്ലേ അ മെറ്റിരിയല് ആ ആ ആ ഉണ്ട് മെറ്റീരിയലിരിപ്പുണ്ട് ആ ഹാ ആ ഷാള് ഇങ്ങനെ ചേർത്ത് ആ അപ്പോള് അത് കുഴപ്പമില്ല അങ്ങനെ വെച്ച് വെയ്ക്കാം നല്ലതാണ് ആ അങ്ങനെയുണ്ടല്ലോ പിന്നെ കയ്യുടെ നീളം കൈയ്ക്ക് ആ ഹാ അത്രയും മതിയല്ലേ ആ ആ പിന്നെ ഇപ്പോള് ആ ലൈനിങ് ഞാനെടുത്തുകൊള്ളാം ലൈനിങ് തുണി ഇരിപ്പുണ്ട് ആ കളറിന് ചേരുന്നതുണ്ട് ആ പിങ്ക് കളറിരിപ്പുണ്ട് ഇല്ല ഇല്ല അതിരിപ്പുണ്ട് പിന്നെ ചുരി ബോട്ടമാണോ അല്ലാതെ സാധാ അതാണോ പാൻറ്റ് തയ്ക്കേണ്ടത് ബോട്ടം തയ്ക്കേണ്ടത് ആ ഫ്രോക്ക് ആ ഫ്രോക്കിൻ്റെ കാര്യം ഞാനോർത്തില്ല അത് വേറെയൊരു ചുരിദാറിൻ്റെ തുണിയാണെന്ന് ഓർത്തുകൊണ്ടായിരുന്നു ഞാനിരുന്നത് ഉം ആ ആ ആ അതെ അതെ ആ എന്നാല് തയ്ച്ചേക്കാം കേട്ടോ ആ ആ ലൈനിങ് തുണി തികയും ലൈനിങ് തുണി ഇരിപ്പുണ്ടായിരുന്നു ഞാനിന്നാളൊരു വേറെയൊരു ഇങ്ങനെ ഫ്രോക്ക് തയ്ക്കാനെടുത്തതിൻ്റെ ബാലൻസിരിപ്പുണ്ടായിരുന്നു അതിതിന് ചേരും മോള് കൊണ്ടുവന്ന തുണിക്ക് ചേരുന്നതാണ് അപ്പോള് ഞാനതെടുത്ത് തയ്ച്ചേക്കാം ആ ഹ ഹ ഹ ആ ആ ഇല്ല അത് നല്ല തുണിയാണ് അത് കുഴപ്പമില്ല ആണോ ആ വിമലയിലൊക്കെ നല്ല കളക്ഷനുണ്ടല്ലേ ഒരുപാട് നല്ലത് ഒത്തിരി നാളായി ഞാനങ്ങോട്ടൊക്കെ പോയിട്ട് അതെയല്ലേ അതെ നല്ല കോട്ടൺ സാരിയൊക്കെയുണ്ടോ അവിടെ സാരി വില കുറവൊക്കെയുണ്ടോ അതെയല്ലെ ആണോ മ്ഹ് ഹ് ഹ് ആ ഹാ ഹാ ആ പഫ് പഫ് വെയ്ക്കുന്നത് ഇഷ്ടമാണോ ആണോ ആണോ ആ ഹാ ഹാ ഹാ എന്നാലത് വെച്ചുതരാം പഫ് വെച്ച് തയ്ക്കണമല്ലേ മ്മ് മ്മ് ആ ഹാ കുഴപ്പമില്ല മുത്ത് മുത്ത് വെച്ച് തയ്ക്കുന്നത് അത് ഇഷ്ടമാണെങ്കിൽ ആണോ ആ അതിങ്ങനെ കഴുകുമ്പോഴൊക്കെ ചിലപ്പോള് പറിഞ്ഞൊക്കെ പോകും മുത്തൊക്കെ വെച്ചുകഴിഞ്ഞാല് അല്ലെങ്കില് ലെയ്സ് വെച്ചങ്ങ് തയ്ച്ചാലോ അതല്ലേ കുറച്ചുകൂടെ നല്ലത് മുത്തൊക്കെ വച്ചാല് ചിലപ്പോള് നമ്മള് കഴുകുമ്പോക്കെ പറിഞ്ഞൊക്കെ പോകുമായിരിക്കും ആ താഴെ ലെയ്സ് വെയ്ക്കണമെങ്കില് അങ്ങനെ വെയ്ക്കാം അല്ലെങ്കില് അല്ലെങ്കില് ഇങ്ങനെ മൂന്ന് ഫ്രില് പോലെ വേണമെങ്കില് വെച്ചിട്ട് അതിൻ്റെ ആ ഫ്രില്ലിൻ്റെ ആ അടുത്തുകൂടെ വേണമെങ്കില് ലെയ്സ് വെയ്ക്കാം എന്നാലും കുറച്ചുകൂടെ ഭംഗിയായിരിക്കും അ ആ ആണോ ആ ആ ആ അതെ അതെ ആ അ എബ്രോയ്ഡറി ആയിട്ട് ചെയ്യണമെങ്കില് ആ അതിന് നല്ലയൊരു നല്ല ഇത്തിരി ഡാർക്ക് കളറുള്ള പിങ്ക് കളർ ലേസല്ലെ അപ്പോള് ഇത്തിരി ഡാർക്ക് കളറിലെന്തെങ്കിലും വെച്ച് അത് എംബ്രോയ്ഡറി ചെയ്യുകയാണെങ്കില് ഒരു വൈലറ്റോ അങ്ങനെ ഏതെങ്കിലും നല്ല ആ ആയിക്കോട്ടെ അതിന് ടോപ്പ് തയ്ക്കുന്നതിന് മുന്നൂറ്റിയമ്പതായിരുന്നു ആ ഹാ മുന്നൂറ്റിയമ്പത് പിന്നെ ലൈനിംഗും കൂടെയുള്ളതുകൊണ്ട് ലൈനിങ് തുണി ഞാൻ തന്നെ എടുക്കുമല്ലോ ആ അതുകൊണ്ട് അതിൻറ്റെയും കൂടെ കൂട്ടി ഒരു നൂറും കൂടെ കൂട്ടി നാന്നൂറ്റിയമ്പതാകും ആ എന്നത്തേയ്ക്കാണ് വേണ്ടത് ആണോ അത്യാവശ്യമുണ്ടോ അതേ എനിക്ക് അതെയോ ആണോ നല്ല തിരക്കാണ് ഒത്തിരി തയ്ക്കാനൊക്കെയുണ്ട് മൂന്ന് ദിവസമോ ആ അതെ അതെ അതെയോ ആ ഞാനൊന്ന് നോക്കട്ടെ ആ ആ ഞാൻ നോക്കാം എന്നാല് ഞാൻ മൂന്ന് ദിവസമല്ലേ മൂന്ന് ദിവസം തയ്ച്ചുതരാന് നോക്കാം കേട്ടോ തയ്ച്ചുതരാം ആ തയ്ച്ച് കഴിഞ്ഞ് ഞാൻ വിളിച്ചേക്കാം ഞാൻ വിളിച്ചേക്കാം തയ്ച്ച് കഴിയുമ്പോള് അന്നേരം വന്ന് ഇതൊന്ന് ഇട്ടൊക്കെ നോക്കിയിട്ട് ആ ഹാ ആ എന്നാലങ്ങനെ നോക്കി തയ്ച്ചേക്കാം എന്നിട്ട് വന്നൊന്ന് ഇട്ടൊക്കെ നോക്കിയിട്ട് പറഞ്ഞാല് മതി ആ എന്നാല്